ആ വരൂ വരൂ വരൂ ഇരിക്കൂ ഇരിക്കൂ ആ ആ ആ ആ അടച്ചു ഇല്ല ഇല്ല അത് ഏത് മേഖല തിരഞ്ഞെടുക്കാൻ ആണ് താല്പര്യം അത് വല്ല ഐടി ഫീൾഡിലോട്ട് പോകാൻ ആണോ അതോ എങ്ങനെയാണ് ആ ആ ആ ഐടി ആണെങ്കില് ഇനി ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന ആണ് കുറച്ച് കൂടി നല്ലത് അത് ആകുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡിഗ്രിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം അങ്ങനെ ബി സി എ അങ്ങനെ ഏതെങ്കിലും പഠിച്ചിട്ട് പോകാം അത് ആകുമ്പോൾ കുറച്ച് കൂടി സ്കോപ്പ് ഉള്ള ഒര് ഏരിയ ആണ് അത്

അതെ എമ്പത്തഞ്ച് ശതമാനം റിസർവേഷൻ വല്ലതും ഉണ്ടോ ആ എമ്പത്തഞ്ച് ശതമാനം കിട്ടും എന്തായാലും ഇത് ഇപ്പോൾ ഒക്കെ സീറ്റ് ഒക്കെ വർദ്ധിച്ച് ഉണ്ടല്ലൊ അപ്പോൾ സീറ്റ് ഒക്കെ കൂട്ടിയിട്ട് ഉണ്ടല്ലൊ അപ്പോൾ എന്തായാലും കിട്ടും ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഇപ്പോൾ ഐടി നല്ല സ്കോപ്പ് ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ കേരളത്തില് ഇപ്പോൾ പണ്ടത്തേലും വച്ച് കുറച്ച് കൂടി ഇപ്പോൾ സാധ്യത ഉണ്ട് എന്നാലും പുറത്ത് ആണ് കുറച്ച് കൂടി നല്ല ശമ്പളവും ബാക്കി ജോലി സാധ്യത കുറച്ച് പുറത്ത് ആണ് അതെ അതെ അതെ അതെ ആ നല്ല സ്കോപ്പ് ഉണ്ട് അതിൻ്റെ ഇത് ഇപ്പോൾ കഴിഞ്ഞിട്ട് കേരളത്തിൽ തന്നെ പഠിക്കാൻ ആണോ അതോ പുറത്ത് പോകാൻ താൽപ്പര്യം ഉണ്ടോ ബാംഗ്ലൂര് ചെന്നൈ അങ്ങനെ എവിടെ എങ്കിലും ഇത് ഇപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ പ്ലസ് വൺ പ്ലസ് ടു കേരളത്തിൽ കുഴപ്പം ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡിഗ്രിക്ക് കേരളത്തില് പ്രൈവറ്റ് കോളേജുകള് ഈ കുറവ് ആണ് നമ്മുടെ ഈ കോയമ്പത്തൂര് അല്ലെങ്കിൽ ചെന്നൈ ബാംഗ്ലൂര് ഒക്കെ ആകുമ്പോൾ

അല്ല ഫീസ് നമുക്ക് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അത് എന്തേലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അത് അവിടെ ഹോൾഡ് ഉള്ളതുകൊണ്ട് നമ്മള് പറഞ്ഞ് അത് കുറച്ച് കുറച്ച് തരും നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് പോലെ അടച്ചാലും മതി അതെ അതെ അവിടെ ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ പ്ലേസ്മെൻറ്റ് കൂടുതൽ ആയിരിക്കും അവിടെ അതെ അതെ നമ്മൾ ഇവിടെ കേരളത്തില് പ്ലേസ്മെൻറ്റ് കുറവ് ആണ് പക്ഷെ ഫീസ് വലിയ കുഴപ്പം ഇല്ല കേരളത്തിൽ പക്ഷെ പുറത്ത് ആകുമ്പോൾ ഫീസ് കൊടുത്താല് നമുക്ക് മൊതൽ ആവും നമുക്ക് നല്ല പ്ലേസ്മെൻറ്റ് അവിടെ ഒര് ഹണ്ട്രഡ് പെർസെൻറ്റ് പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട് ആ അതെ അതെ ഇപ്പത്തെ അവസ്ഥ ഒക്കെ ഇത് ആണ് കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോൾ ആകെ കൂടി മൊത്തത്തില് ഞെരുക്കം ആണല്ലോ

അതെ അതെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന കുറച്ച് കൂടി നല്ലത് അത് ആകുമ്പോൾ സയൻസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ മേഖല തന്നെ ആണ് നമ്മള് ഡിഗ്രി എടുക്കുമ്പോൾ വലിയ പ്രശ്നം വരില്ല പഠിക്കാനും ബാക്കി ഉള്ളതിനും വലിയ പ്രശ്നം വരില്ല കോമേഴ്സിനേക്കാളും സ്കോപ്പ് ഇപ്പോൾ സയൻസെന്നെ ആണ് സയൻസ് നമുക്ക് നോക്കുന്ന അല്ലേ കുറച്ച് കൂടി നല്ലത്

ഒന്ന് ഇത് ഈ കാർഡില് വിളിച്ചാൽ മതി ഈ കാർഡില് രണ്ടാമത്തെ നമ്പറില് വിളിച്ചാൽ മതി ആ അതില് വിളിച്ചാൽ മതി വിളിച്ചാൽ മതി ആ ആ ശരി ഓക്കെ എന്നാൽ